ഞാൻ നടത്തിയ ഏറ്റവും മനോഹരവും ഒരിക്കലും മറക്കാൻ പറ്റാത്തതുമായ ഒരു മലകയറ്റയാത്രയാണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് അത് വേറെ എവിടെയുമല്ല നമ്മുടെ വയനാടിലെ എടക്കൽ ഗുഹയിലേക്ക് പോയ യാത്രയായിരുന്നു അതിമനോഹരമായ അതിസാഹസികമായ യാത്രയായിരുന്നു അത് ചെറിയ ക്ലാസ്സുകളിൽ പുസ്തകങ്ങളിൽ പഠിച്ച അറിവ് മാത്രമേ എടക്കൽ ഗുഹയിനെക്കുറിച്ച് എനിക്കാദ്യം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇവിടെ പോകണമെന്ന് തോന്നി അങ്ങനെ ഫാമിലി ആയിട്ട് കുടുംബമായിട്ട് അവിടുത്തേക്ക് പോവാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ എടക്കൽ ഗുഹേൻ്റെ താഴെ എത്തി മുകളിലേക്ക് നോക്കുമ്പോഴേക്കും കുറേ പാറ കഷ്ണങ്ങളും കുറേ കല്ലുകളും കുറേ സ്റ്റെപ്പ് പടികളും മാത്രോമല്ലാണ്ട് മറ്റൊന്നും കാണുന്നുണ്ടായിരുന്നില്ല പക്ഷേ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കയറി കയറി അതിൻ്റെ എൻട്രൻസിലേക്ക് എത്താൻ തന്നെ കുറേ പണിപെട്ടു അതുകഴിഞ്ഞ് എൻട്രൻസ് കയറി അവിടുന്ന് നേരെ എടക്കൽ ഗുഹയിലേക്കുള്ള അതിൻ്റെ മലകയറ്റം ആരംഭിച്ചപ്പോൾ മുതൽ ക്ഷീണിച്ച് വലഞ്ഞ ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിമനോഹരമായ കാഴ്ചകളും അതിമനോഹരമായ പാറക്കഷ്ണങ്ങളും പല ആകൃതിയിലും പല നിറങ്ങളിലും ഉള്ള പാറ കഷ്ണങ്ങളായിരുന്നു നമുക്ക് വഴി നീളെ കാണാൻ പറ്റിയത് കൂടാതെ ഓരോ മലകളിലേക്കും ഓരോ പാറകളുടെയും മുകളിലേക്ക് കയറി താഴലേക്ക് നോക്കുമ്പോൾ താഴേക്ക് നോക്കിയവർ നോക്കി ഇരിക്കുമ്പോൾ കിട്ടുന്ന സുഖം മറ്റൊരു യാത്രകൾക്കും കിട്ടിയിരുന്നില്ല യാത്രക്കാർ സഞ്ചാരികൾ വന്ന് കൊണ്ടേ ഇരിക്കുവാണ് മലകയറ്റക്കാർ റോക്ക് ക്ലൈമ്പേഴ്സ് വന്ന് കൊണ്ടേ ഇരിക്കുവാണ് പക്ഷേ എല്ലാവരും ക്ഷീണിച്ച് വലയുന്നു വെള്ളം കുടിക്കുന്നു എന്തെങ്കിലും ലഖുഭക്ഷണങ്ങൾ കഴിക്കുന്നു പക്ഷേ അതിൻ്റെ രണ്ട് സൈ ഭാഗങ്ങളിലും നിറയെ കുരങ്ങന്മാരും അവിടവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരുടെ കൂടെ ശബ്ദങ്ങളും മറ്റും ഉണ്ടാക്കി കളിക്കുകയും തുടർന്ന് മലകയറ്റം ആരംഭിക്കുകയും ചെയ്തു ഒന്നും പറയാൻ പറ്റാത്ത ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്ര തന്നെ ആയിരുന്നു അത് സാഹസികാനുഭവങ്ങളിൽ ഏറ്റവും ആദ്യം ഞാൻ എടുത്ത് പറയുന്നത് ആ എടക്കൽ ഗുഹയിലേക്കുള്ള ആ യാത്രയായിരുന്നു ആദ്യം കേൾക്കുമ്പോൾ ചെറിയ സാഹസികത മാത്രമേ തോന്നുവെങ്കിലും കയറി കയറി അവസാനം ശ്വാസം മുട്ടാൻ തുടങ്ങി ഹൃദയാഘാതം വന്ന് മരിക്കുക പോലും ചെയ്യുമെന്ന് തോന്നി പക്ഷേ എങ്ങനെയെങ്കിലും ആ യാത്ര പൂർണ്ണമാക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം അങ്ങനെ ഓരോ പാറകളിലൂടെയും പടികളിലൂടെയും കയറി കയറി കയറി മുകളിലേക്ക് എത്തി അതായിരുന്നു